വ്യത്യസ്ത ഭാഷകളിലും വ്യത്യസ്ത സ്വരശൈലികളിലും സാങ്കേതികത്യം പാടുന്നത് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും തീർച്ചയായും ഇത് സാധ്യമാണ് നാം എനിക്ക് എൻ്റെ മാതൃഭാഷ മലയാളം ആയതുകൊണ്ടുതന്നെ എനിക്ക് പെട്ടെന്ന് മലയാളം മലയാളം പാട്ട് പെട്ടെന്ന് പാടാൻ കഴിയും നമുക്ക് ആ ഭാഷ പറയാനും പ്രവർത്തിക്കാ സംസാരിക്കാനും ഒക്കെ കഴിയുമ്പോൾ അതിനോട് തന്നെ ഇപ്പം ഐ ആ ഭാഷയിലുള്ള പാട്ട് പാടാനും നമുക്ക് പെട്ടെന്ന് കഴിയും എനിക്ക് അറബി എഴുതാനും സംസാരിക്കാനും അറിയാം അപ്പം അറബി പാട്ടും പാടാൻ എനിക്ക് സിമ്പിൾ ആണ് ആ ഭാഷ അറിയുന്നതുകൊണ്ട് എനിക്ക് സിമ്പിൾ ആയി കിട്ടും അതുപോലെ തന്നെയാണ് ഓരോ ഭാഷയിലും മാപ്പിള പാട്ടായാലും സിനിമ പാട്ടായാലും എന്ത് പാട്ടായാലും ഏത് ഭാഷകളിലേതാണെങ്കിലും ആ ഭാഷയോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനും അത് പെട്ടെന്ന് പാടാനും പാടാനും കഴിയും നമ്മുടെ എൻ്റെ ഭാ ഭാഷ മാതൃഭാഷ ആയതുകൊണ്ടുതന്നെ എനിക്ക് പെട്ടെന്ന് പാടാൻ കഴിയുക മലയാളപ്പാട്ടും പിന്നെ അറബി സംസാരിക്കാൻ പിന്നെ അറിയുന്നതുകൊണ്ട് അറബിപ്പാട്ടും പെട്ടെന്ന് കഴിയും അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഭാഷകളൊക്കെ നമ്മൾ എങ്ങനെയാണോ ആ ഭാഷേനെ നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ആ ഭാഷയുടെ പാട്ട് പാടാനും കഴിയുന്നത് നമ്മൾ സ്കൂളിൽ തന്നെ ഫസ്റ്റിൽ ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഹിന്ദിയെല്ലാതും പഠിക്കുന്നതാണ് അപ്പോൾ ആ പ്രായം തൊട്ടേ നമ്മൾ പാടുമ്പോൾ നമുക്ക് അതിൻറേതായ മെച്ചങ്ങളും ഉണ്ടാകും എല്ലാവരും എത്രയോ ഭാഷകൾ ഒരാൾ തന്നെ പല ഭാഷകളായിട്ട് സംസാരിക്കാനും പറയാനും കഴിയുന്ന എത്രയോ പേരുണ്ട് നമുക്കിടയിൽ അപ്പോൾ സാങ്കേതികനായിട്ടായാലും എങ്ങനെ ആയാലും നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും